ആ ഇത് ട്രിവാന്ഡ്രത്തെ എച്ച് പി ലാപ്ടോപ്പ് കെയറല്ലേ ആ നമ്മളാണ് ഇവിടെ നമ്മള് നെയ്യാറ്റിന്കരയില്നിന്നു വിളിക്കുകയാണ് ഇവിടെ ആറു മാസം മുമ്പ് ആണെങ്കില് ഒരു എച്ച് പി ലാപ്ടോപ്പ് വാങ്ങിച്ചായിരുന്നു അതാണെങ്കില് ഇപ്പോള് ഒരു രണ്ടു മൂന്നാഴ്ചകൊണ്ടു നല്ല ഹാങ്ങാണ് സംഭവം അത് ഒന്നു ശരിയാക്കണം അതിൻ്റെ ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ചോദിക്കാനാണു വിളിച്ചത് എത്ര ദിവസത്തെ വാറണ്ടിയുണ്ട് സർ അതെ അതെ അതെ അതെ പരസ്യം കണ്ടിട്ട് ചെയ്യാനോ ആ

ഓ അതിൻ്റെ എഴുതിത്തന്ന മറ്റേ വാറണ്ടി കാർഡില് ഡേറ്റും അതൊക്കെ ഉണ്ടെങ്കില് കുഴപ്പമില്ലല്ലോ സർ

ആ ഇനി നമ്മുടെ ആ ആ അപ്പോള്

പകരത്തേക്കു വേറെ വാങ്ങാന് അങ്ങനെ പറ്റത്തില്ല അല്ലേ

ആ ഇപ്പോള് മറ്റേ പത്രത്തിലെ പരസ്യം കണ്ടിട്ടാണ് വാങ്ങിച്ചത് ഇങ്ങനെ ഓഫര് കണ്ടിട്ടാണ് അപ്പോള് അതിന് നമുക്ക് എച്ച് പി വേണ്ട അടുത്ത് ലെനോവ വേണം വേണമോ വേണമെന്നാണെങ്കിൽ അത് ഇപ്പോള് പൈസ എക്സ്ട്രാ എത്രയാണ് അധികമാവുന്നത് ഉദ്ദേശം

ആ പിന്നെ ഒന്ന് ഹാങ്ങായപ്പോള് നമ്മള് അടുത്തുള്ള ഒരു ഷോപ്പില് ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു അപ്പോള് അവര് എന്തോ അകത്തുള്ളൊരു സോഫ്റ്റ്വെയർ മാറ്റിയിരുന്നു അപ്പോള് ഇനി അത് നമ്മള് ഈ കമ്പനി ഷോറൂമില് കൊണ്ടുവരുമ്പോള് അതിനു വല്ല കുഴപ്പവുമുണ്ടോ സാര്

ആ

അത് ആ ശരി ശരി അത് എല്ലാ ദിവസവും വർക്കിംഗാണോ സാർ അതോ ഞായറാഴ്ചയൊക്കെ ലീവാണോ ആ ഷോപ്പ്

അ ഓ ക്ലാസ്സിന് എല്ലാ ദിവസവും പോകുന്നതുകൊണ്ട് ഇപ്പോള് ഞായറാഴ്ച ഇപ്പോള് അവിടെ സ്ഥാപനം വർക്കിങ്ങാണെങ്കില് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാണ് ചോദിച്ചത് ആ ശരി ശരി അപ്പോള് ആള് നില്ക്കണമെന്നില്ലല്ലോ

ആ പിന്നെ അതിൻ്റെ മറ്റേ അഡാപ്റ്ററൊക്കെ അഡാപ്റ്ററും ബാറ്ററിയും അതിൻ്റെ അതൊക്കെ ഒന്ന് മാറ്റിക്കിട്ടുമോ ആ ഇത് ഈ ട്രിവാന്ഡ്രത്ത് കറക്റ്റ് എവിടെയായിട്ടാണു വരുന്നത് എൻ്റെ അങ്കിളിൻ്റെ മോനാണു വാങ്ങിച്ചിട്ടു വന്നത് അതാണ് അങ്കിളിൻ്റെ മോനാണ് ഇത് വാങ്ങിച്ചുതന്നത് ട്രിവാന്ഡ്രത്തുനിന്നാണെന്നാണു പറഞ്ഞത് ഷോപ്പ് ഇത് ട്രിവാന്ഡ്രത്ത് എവിടെയായിട്ടാണ് കറക്റ്റായിട്ടു വരുന്നത് സ്ഥലം ആ അതെ അതെ ഓ ഇപ്പോള് തമ്പാനൂരിന്റെ അടുത്ത ജംക്ഷനില് എന്നാല് ശരി